കേരളത്തില് വ്യക്തി മുദ്ര പതി പതിപ്പിച്ച പ്രധാന കായിക താരങ്ങൾ എന്ന് പറയുമ്പോൾ പി ടി ഉഷ ഷൈനി പിന്നെ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ വലിയ ഇതിലുള്ള ആൾക്കാരാണ് വലിയ കായിക താരങ്ങളാണ് അവരൊക്കെയാണ് കൂടുതലും നമ്മള് അറിയപ്പെടുന്ന ആൾക്കാര് മറ്റുളവരൊന്നും ഈ പറഞ്ഞ ആൾക്കാരൊന്നും നമുക്ക് അത്ര ഇതില്ല ഇവരൊക്കെ നല്ല പരിചയവും അങ്ങനെ നമുക്ക് എല്ലാ ഇപ്പോഴും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഇവരെ ഒക്കെയാണ് നമുക്ക് കൂടുതൽ ആയിട്ടുള്ള അറിയാ അറിയുന്നത്